ഇപ്പോൾ വയനാട് ജില്ലയിലെ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥയും ജീവിത കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇവിടെ കൂടുതലായിട്ടും ശൈത്യകാലം ആ ഒരു കാലഘട്ടത്തെ അഭിമുകീകരിച്ച് ഇരിക്കും നമുക്കിവിടുള്ള ജീവിതവും കാര്യങ്ങളുമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കാരണം നമുക്ക് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള വെയില് കാര്യങ്ങളും ഉള്ള സമയത്താണെങ്കില് നമക്ക് എന്താ പറയുക ചെറിയ രീതിയിലുള്ള ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയാണ് നമ്മുടെ വയനാടിൻ്റെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ഇപ്പം പൂർണ്ണമായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ സമയത്തൊക്കെ മഴ പെയ്യണ്ട ഒരു സമയത്ത് കൂടുതലായിട്ടും വെയിലും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇനിയിപ്പം ദൈനംദിന ജീവിതത്തില് നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള ചൂട് അനുഭവിക്കാൻ നമ്മള് അതായത് തുടങ്ങിയിട്ടുണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാർച്ച് മെയ്യ് ആ സമയങ്ങളില് നല്ല രീതിയിലുള്ള ചൂട് എന്തായാലും അനുഭവിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയങ്ങളില് നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളുവൊക്കെ നമുക്ക് കറക്റ്റ് വെയില് അതായത് വെയിലിൻ്റെ ചൂടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡിഗ്രി കൂടുതലാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മഴ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒരു ജൂണ് ജൂലൈ ആ സമയങ്ങളിലൊക്കെ മഴ പെയ്യെണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളുമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ആ സമയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള വെയില് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഡിസംബറ് ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഒരു മാസം കാലഘട്ടങ്ങളില് നല്ല രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെയായിരിക്കും ഉണ്ടാവുക